ആ ഹലോ ഉണ്ട് ഉണ്ട് ഞങ്ങളുടെ ഹോട്ടലിന്റെ പേര് ആര്യാസ് എന്നാണ് അവിടെ പത്ത് പേർക്ക് നൂറ് പേർക്ക് എത്ര പേർക്ക് വേണമെങ്കിലും ഫുഡ് കഴിക്കാനുള്ള സൗകര്യം ഉണ്ട് എന്തുവാണ് നിങ്ങൾക്ക് വേണ്ടിയത് കഴിക്കാൻ വെജിറ്റബിളോ വെജിറ്റബിളാണെങ്കിൽ മസാല ദോശയുണ്ട് പിന്നെ ദോശ ചമ്മന്തിയുണ്ട് പിന്നെ ഇഡ്ഡലി സാമ്പാറുണ്ട് പൂരിയും കറിയുണ്ട് പിന്നെ അപ്പവും പിന്നെ വെജിറ്റബിൾ കറിയുണ്ട് ഏതാണെന്നു വച്ചാൽ ഓർഡർ തരാമെങ്കിൽ റെഡിയാക്കി വയ്ക്കാം അതെ അതെ അതെ ആ ശരി ആ അമ്പലത്തിന്റെ തൊട്ട് അടുത്തായിട്ടാണ് അമ്പലത്തിന്റെ തൊട്ട് അടുത്തായിട്ടാണ് ആ അവിടെ ആ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് നിങ്ങൾ ഏത് വണ്ടിക്കാണ് വരുന്നത് ആ ആ ആ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ആ ആ ആ ആ അതൊക്കെ ഉണ്ട് പുരുഷൻമാർക്ക് സ്ത്രീകൾക്കും ഉള്ള കുട്ടികൾക്കുമുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അവിടെ ആ

അതൊക്കെ ഇവിടെ വന്നിട്ട് കഴിക്കുന്നതിന് അനുസരിച്ചിട്ട് ബില്ല് പേ ചെയ്താൽ മതി ആ

പൊന്നു മോനെ മതിയെടാ